പ്രപഞ്ചം എന്നത് നിഗൂഢതകളുടെ ഒരു കലവറയാണ് ഒരു കൂമ്പാരമാണ് യുഗ യുഗങ്ങൾക്ക് മുൻപ് പിന്നേ ദേവി ദേവന്മാരുണ്ടായി എന്നും അല്ലെങ്കില് അങ്ങനെ പല കഥകളും പ്രചരിച്ചു വരുന്നുണ്ട് അപ്പം അത് കേൾക്കാനും അറിയാനും ഭയങ്കര തീക്ഷ്ണതയുള്ള ഞാനൊരു ഹിന്ദു പുരാണങ്ങളിൽ കേട്ടിട്ടുള്ള കഥയാണ് ലോകത്ത് അതായത് നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ശിവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പം അവരോടൊരു ശിവലിംഗമോ അല്ലേലേതോ കൈതയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തിൻ്റെയോ അറ്റം കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞു എന്നോ അതിൽ നിന്നുമാണ് പ്രപഞ്ചം ഉൽപ്പത്തി തുടങ്ങിയത് അങ്ങനെയൊക്കെ പല പല പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്ത് സത്യം എന്തിത് എന്നറിയില്ല അതാണ് പറഞ്ഞത് നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് സൃഷ്ടികൾ എന്ന് പറയുന്നത് പല നിഗൂഢതകൾ ആണ് ഇന്നും പലതും പല നിഗൂഢതകൾ എങ്ങനെ ഉണ്ടായി എന്തു രീതിയിൽ ഉണ്ടായി എന്ന് നമുക്കിപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത പല അതായത് നിർമ്മിതികൾ ഉണ്ട് നമ്മുടെ ഈ ലോകത്തില് അപ്പം പറയുക എന്താ പറയുക നമുക്ക് ഭയങ്കര ആകാംഷയാണ് ഓരോന്ന് കേൾക്കാൻ ചിലത് പറയുന്നു എത്രയെത്ര ടെമ്പിളുകളുണ്ട് മനുഷ്യ നിർമ്മിതമല്ലാതെ ദൈവ നിർമ്മിതമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായതാണ് അതേപോലെത്തന്നെ പിന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ ഈജിപ്തിൽ പോയിട്ടുണ്ടെങ്കില് അതൊക്കെ കാണാനുള്ളതാണ് മമ്മി അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു അങ്ങനെയൊരു കാലഘട്ടത്തില് ഉണ്ടാ അങ്ങനെയൊരു കാലഘട്ടം നിലനിന്നിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ ഈ നാ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയില് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒത്തിരിയൊത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അത് ഏതൊരു മനുഷ്യനും ഏതൊരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ആകാംഷ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് അതല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കഥയാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ നിഗൂഢതകളെ കുറിച്ച് ഇപ്പഴും നിഗൂഢമായിട്ടുള്ള ഒന്ന് നമുക്കുമറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം നിഗൂഢക നിഗൂഢതകളുടെ ഒരു കാലവറയാണത് ഏ അതില് പലതും പറയുന്നുണ്ട് ആഹ് എ നിലവറയോ ബി നിലവറയോ തുറന്നാൽ നമ്മുടെ ഈ നാട് തന്നെ നശിച്ചുപോകും എന്ന് പറയുന്നതുണ്ട് അവിടെ നിധി കൂമ്പാരങ്ങളുണ്ട് എങ്ങനെ വന്നു ഏത് രീതിയിൽ വന്നു എന്നൊന്നും അറിയില്ല അതാണ് മിസ്റ്ററി ആണ് എല്ലാം എന്ന് പറയുന്ന ഇവിടെ ലോകം തന്നെ ഒരു മിസ്റ്ററിയാണ് നമ്മളൊരു മിസ്റ്ററിയാണെന്ന് പറയാതെ പറയുന്നതാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ അറിയാൻ ആർക്കായാലും ആകാംഷ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കൂടി ക്യൂരിയോസിറ്റി കൂടുതൽ ആണ്